ഈ ഫോണിൽ എത്ര പൈസ കയറ്റി പൈസ ബാലൻസ് നിൽക്കുന്നില്ല എന്തോരം പെട്ടെന്നാ പൈസയൊക്കെ പോകുന്നത് ഈ സിമ്മ് തന്നെ മാറ്റണം തോന്നുന്നുണ്ട് അതെ ഇനി ഇപ്പം നടക്കുള്ളൂ പൈസ രണ്ടുദിവസം വിളിക്കുമ്പോളേക്ക് നെറ്റും ഇല്ല എല്ലാം കഴിഞ്ഞു പിന്നെയും നെറ്റ് കയറ്റണം രണ്ട് ജി ബി ഫോർ ജി ബി ഫൈവ് ജി ബി എന്നൊക്കെ പറയുക അല്ലാതെ ഫൈവ് ജി ബി യും ഇല്ല ടു ജി ബി യും ഒന്നും ഇല്ല അപ്പം ഈ നമ്പറ് ഇനി ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല ഇപ്പം പുതിയ റീചാർജിങ് ഇപ്പം ചെയ്യുമ്പോളേക്ക് പിന്നെയും ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ പൈസ ഇരുപത്തെട്ട് ദിവസം കോൾ ചാർജിങ് ഉണ്ട് നെറ്റിങ് ഉണ്ടാവില്ല നെറ്റ് ഉണ്ടാവില്ല അപ്പം ആ നെറ്റും ഇതൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ സിമ്മ് മാറി അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇല്ലാ എന്നുണ്ടെങ്കി ഇപ്പോൾ അക്ഷയയിൽ എന്തോ ഒരു ഫ്രീ വൈഫൈൻ്റെ കാര്യം പറയുന്നത് കേട്ടു അപ്പം അതിലൊന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാമായിരുന്നു ഇപ്പോൾ ഫ്രീ ആയിട്ട് വൈഫൈ അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ വൈഫൈ കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയാകുമ്പോൾ നമുക്ക് നെറ്റ് ആ വഴി കിട്ടും പിന്നെ കോളിങ്ങല്ലേ കയറ്റേണ്ടതുള്ളൂ കോളിംഗ് നൂറ് രൂപ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നമ്മൾ ഈ ഉപയോഗത്തിനനുസരിച്ച് കയറ്റിയാൽ മതിയല്ലോ നെറ്റ് അങ്ങനെ കിട്ടുകയും ചെയ്യും